ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻ കരിമീനാണ് കരിമീന് ഈ നമ്മുടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളില് നിന്നും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മള്ക്ക് കിട്ടുന്നത് മെയിൻ നല്ല മാ ഫ്രഷായിട്ടുള്ള മീന് വേണമെങ്കില് നല്ല വില കൊടുക്കേണ്ടി വരും മത്സ്യം കായലില് കായലിലാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ പൊതുവെള്ളം വരുമ്പോൾ സ് കലക്കൽ വരുമ്പോളത്തേക്ക് മത്സ്യങ്ങള് കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് വരാൽ കാരി കരിമീനും ചെമ്മീനോക്കെയാണ് നമുക്ക് കിട്ടുന്നത് ചെമ്മീൻ ചില സീസണിലുണ്ട് ആ സീസണില് മാത്രമേ ചെമ്മീന് കിട്ടുവൊള്ളൂ കൂടാതെ കാ കടല്മത്സ്യമായ കാളാഞ്ചി വറ്റ ഇവയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇവയ്ക്കൊക്കെ നമ്മൾ രണ്ട് ഗ്രാം മൂന്ന് കിലോ അതിന് മേലോട്ടുള്ള വേയ് ഭാരമുള്ള മത്സ്യങ്ങളാണ് ഇവയെ ചില്ലറയായിട്ടും നമുക്കും മുറിച്ച് കടകളില് നിന്നും നമുക്ക് കിട്ടാറുണ്ട് എങ്കിലും കൂടുതലായി നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന മീനുകൾ ഐല മത്തി ഇവയാണ് കൂടുതലായിട്ടും ഈ നാടന് പ്രദേശങ്ങളില് കിട്ടുന്നത് മറ്റേത് ടൗണില് പോവേണ്ടി വരും മീൻ വലിയ മീനുകളെ മേടിക്കാനായിട്ട് ഇപ്പോള് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും മീനുകൾ നമ്മൾ കുട്ടനാട്ടിലെ പ്രദേശം ആയോണ്ട് കൂടുതലായിട്ടും ചൂണ്ടയിട്ടും വല വീശിയുമാണ് നമ്മൾ കൂടുതലായിട്ട് മീന് പിടിക്കുന്നത് അതാവുമ്പോള് നമുക്ക് തന്നത്താനെ അധ്വാനിച്ച് പിടിക്കുന്ന മീനിന് പ്രത്യേക ഒരു രുചി കൂടുതൽ ഉണ്ടെന്ന് പറയുക പറയാറുണ്ട് അത് ശരിയുമാണ് എങ്ങാല് എത്ര എത്ര വലിയ മീനാണെങ്കിലും അധ്വാനിച്ച് പിടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് അപ്പോൾ അതാവുമ്പോൾ കൂടുതലായിട്ടും ഈ മത്സ്യം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എല്ലാം ചെറുമത്സ്യവുണ്ട് വയം വയമ്പ് എന്നുള്ള മീൻ അത് വള്ളത്തേല് നടന്ന് വീശി പിടിക്കാറുണ്ട് അപ്പം വലിയ റിസ്കില്ല അത് പിടിക്കാൻ ആയിട്ട് വെട്ടി കഴുകാൻ ആയിട്ടും എല്ലാം എളുപ്പമുണ്ട് അതിന്റെ തലവെട്ടി വാലും വെട്ടി കഴിയുമ്പം അത് നമുക്ക് എളുപ്പമെന്ന് ഉപയോഗിക്കാന് സാധിക്കും കുഞ്ഞുങ്ങള്ക്കും പ്രായമായവര്ക്കും പല്ലില്ലാത്തവര്ക്കും എല്ലാം കഴിക്കാൻ ആയിട്ട് എളുപ്പമുണ്ട്